ആ എന്തായിരുന്നു സാറെ ആ ഓ ആണോ അപ്പോള് ഇന്ന് കൊണ്ടുവെച്ചാല് ഫൈനില്ലാതെ പറ്റുമായിരിക്കുമോ

ആണോ ഇപ്പോള് എത്ര രൂപ വരെ ഫൈൻ വരുമായിരിക്കും അമ്പത്തിയൊമ്പത് രൂപയല്ലേ ആ അപ്പോള് ഇന്ന് ഇന്നുതന്നെ കൊണ്ടുവെച്ചില്ലെങ്കില്പ്പിന്നെ ഫൈൻ കൂടുമായിരിക്കുമല്ലേ ഓ അങ്ങനെ ആ അപ്പോള് ഇന്ന് ഞാൻ സ്ഥലത്തില്ലായിരുന്നു സാർ രണ്ടു ദിവസം മാറിയാല് ഈ ഫൈനില്ലാതെ ശരിയാക്കാന് പറ്റുമോയെന്ന് അറിയാന് വേണ്ടിയായിരുന്നു ഞാനിപ്പോഴുള്ളത് എറണാകുളത്തായിരുന്നു അപ്പം നാളെ ആ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലെ ഇപ്പം നാട്ടിലേക്ക് വരികയുള്ളൂ അപ്പോള് അതാണ് പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല

ആ ആ ഞാനെന്നാല് നോക്കി ആ അതെ ആ ഞാന് എടുത്തിരിക്കുന്നത് കൊച്ചൗവ പൈലോ അയ്യപ്പ കൊയ്ലോ ആ ഓ ആ ഞാൻ കൊണ്ടുവെയ്ക്കാം പക്ഷേ എനിക്കൊരു വേറെയൊരു ബുക്ക് കൂടെ എടുക്കാനുണ്ടായിരുന്നു അപ്പം റോമിയോ ആന്ഡ് ജൂലിയറ്റ് ആ അപ്പം ആ അതെ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ വരുന്നയന്ന് കൊണ്ടുവന്നാലും മതിയല്ലോ അപ്പം ഫൈനടച്ചാല് കുഴപ്പമില്ലല്ലോ ആ ഓ ഓ ആ ഇപ്പോള് നമ്മുടെ കയ്യില് ഓ ഓ ഓ അങ്ങനെ

മ്മ് ആ ആ അപ്പോള് ആ ഞാനിപ്പോള് രണ്ട് ദിവസത്തിനുള്ളില് കൊണ്ടുതന്നേക്കാം രണ്ട് ദിവസം കുഴപ്പമില്ലല്ലോ ഇപ്പം അപ്പം മ്മ് ആ ആ സമയമാകുന്നതേയുള്ളൂയല്ലേ അപ്പം എന്താണ് ചെയ്യേണ്ടത് അപ്പോള് എനിക്ക് വേറെയൊരു ബുക്കിൻ്റെ കാര്യങ്ങള് പറയാന് വേണ്ടിയായിരുന്നു അപ്പം പുതിയൊരു ബുക്ക് വന്നിട്ടുണ്ടായിരുന്നുവോ പുതിയ ഏതെങ്കിലും ബുക്ക് വന്നിട്ടുണ്ടോ അപ്പം ലെയ്റ്റസ്റ്റായിട്ടുള്ള ബുക്കെല്ലാം വന്നിട്ടുണ്ടാകുമോ ഇപ്പോള് പുതിയതായിട്ട് വന്നിട്ടുള്ള ബുക്കെല്ലാമുണ്ടോയെന്ന് ഇപ്പോള് കഴിഞ്ഞാഴ്ച ഇറങ്ങിയ ബുക്കൊക്കെ ഉണ്ടോയെന്നറിയാന് വേണ്ടിയാണ് ഓഹോ ആ അപ്പോള് എനിക്കെന്റെ പഠനം ആ ഞാൻ ബി ബി എ ആണ് പഠിക്കുന്നത് അപ്പോള് അതിന് ആവശ്യമായിട്ട് എന്തെങ്കിലുമൊരു നമുക്ക് മാനേജ്മെൻറ്റിന്റെ ഒത്തിരി ബുക്ക് വേണമായിരുന്നു അപ്പം അത് പുതിയത് കഴിഞ്ഞയാഴ്ച ഇറങ്ങിയായിരുന്നു അപ്പോള് അത് ഇറങ്ങിയോയെന്ന് അറിയാന് വേണ്ടിയായിരുന്നു മാനേജ്മെൻറ്റ് ബുക്കായതുകൊണ്ട് അത് വേണം വേണമായിരുന്നു അപ്പോള് അതുണ്ടോയെന്ന് അറിയാന് വേണ്ടിയായിരുന്നു ആ അപ്പോള് ഞാന് വന്നുനോക്കിയിട്ട് ആ നോക്കിയിട്ട് വിളിച്ചാല് മതി ശരി ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ശരിയെന്നാല് ഓ യെസ്